ഞങ്ങളുടെ ആധാർ അപ്ഡേറ്റിന്റെ അഭ്യർത്ഥന പ്രപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നൊരു എസ് എം എസ് എന്റെ ഫോണിൽ കിട്ടിയായിരുന്നു ഇപ്പോൾ അത് പൂർത്തിയായോ എന്ന് സ്ഥിതീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഞങ്ങളുടെ ആധാർ അപ്ഡേറ്റ് സംബന്ധിച്ച് ഒരു എസ് എം എസ് ലഭിക്കുന്നതിനെക്കുറിച്ച് അതിന്റെ സ്റ്റാറ്റസ് ഓൺലൈനിൽ പരിശോധിക്കുന്നതിന്റെ വ്യത്യസ്ത ഓപ്ഷനുകൾ പരിഗണിക്കുന്നതിനെക്കുറിച്ചും ഞാൻ എന്റെയൊരു കൂട്ടുകാരിയുമായി സംസാരിച്ചിരുന്നു പക്ഷേ അവൾക്കതിനെപ്പറ്റി കൂടതൽ വിവരങ്ങളൊന്നും അറിയാത്തതിനാൽ ഞാനെൻറ്റെയൊരു ഫാമിലി ഫ്രണ്ടായ ഒരു കുട്ടിയുടെ അടുത്ത് സംസാരിച്ചു അപ്പോഴേത്തേക്കും അവൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വല്ല കഫേ സെൻറ്ററുകളിലും പോയി നോക്കുന്നതാണ് നല്ലതെന്നാണ് ഓൺലൈൻ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് ഏറ്റവും ബെറ്ററായ ഐഡിയ അതാണെന്ന് ഉള്ളതാണ് പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലാപ്ടോപ്പ് വീട്ടിലുള്ളവർക്കാണെങ്കിൽ ഇതിന് നെറ്റ് യൂസ് ചെയ്തുകൊണ്ട് പിന്നെ ആധാറിൻറ്റെ സൈറ്റിൽ കയറി നമ്മൾക്ക് ഇത് പരിശോധിക്കാൻ സാധിക്കുന്നതാണെന്ന് പറയുന്നു ആധാറിൻറ്റെ സൈറ്റിൽ കയറി പരിശോധിക്കുകയാണ് എങ്കിൽ അത് നമ്മൾക്ക് അതിന്റെ ഇത് വരെയുള്ള സ്റ്റാറ്റസ് എന്താണെന്നും നമ്മളുടെ ആധാർ അപ്ഡേറ്റായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും എന്തിലെങ്കിലും പ്രോബ്ലം കൊണ്ടാണോ ഇത് അപ്ഡേറ്റാവാത്തത് എന്നതിനെക്കുറിച്ചും മറ്റും നമ്മൾക്ക് ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മൾക്ക് അതിന്റെ അതെല്ലാം നമ്മളുടെ ആധാർ അപ്ഡേറ്റായി അതിന്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് അതും ഇപ്പോൾ തന്നെ അറിയാൻ സാധിക്കും അതിന് ഏറ്റവും നല്ല ഐഡിയ കഫെയിൽ പോയി ആധാറിൻറ്റെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുന്നത് തന്നെയായിരിക്കും